നമ്മുടെ ഇങ്ങനെ സ്ഥലത്തിൽ വെള്ളം നമുക്കത്യാവശ്യമാണ് നല്ല വെള്ള ശുദ്ധീകരിച്ച വെള്ളമാക്കുന്നതിന് പക്ഷേ അതു മിക്കവരും മലിനമാക്കുകയാണ് ചെയ്യുന്നത് തോട്ടിലൊക്കെയാണെങ്കിലും കനാലുകളിലും ഒക്കെ ഓരോന്നു വേസ്റ്റ് സാധനങ്ങൾ വലിച്ചെറിയുന്നു പക്ഷേ അത് എല്ലാവരും കൂടി മുൻകൈയെടുത്തു കൊണ്ട് നമ്മൾ തോടുകളും കനാലുകളും വൃത്തിയാക്കേണ്ടതാണ് അതുപോലെ നമ്മുടേ കിണറുകളിലെ വെള്ളമാണെങ്കിലും കൂത്താടികൾ കയറാതെയും ഒക്കെ സൂക്ഷിക്കണം കുളങ്ങൾ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക അതിന് പായലിടുക പായലൊക്കെയാകുമ്പോൾ കൂത്താടികൾ കുറവായിരിക്കും കൂത്താടികൾ പൊതു കൂത്താടികൾ വരാതെ ശ്രമിക്കാനായിട്ട് സാധിക്കും പിന്നെ തോടുകൾ നമ്മൾ ശരിക്കും വൃത്തിയാക്കേണ്ടതാവശ്യമാണ് തോടുകളിൽ എന്നൊക്കെ വെള്ളം എടുക്കുന്ന ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ പൈപ്പ് പൈപ്പാണെങ്കിലും നമ്മൾ പൊട്ടിപ്പോയെന്നാൽ അത് അധികാരികളെ അറിയിക്കണം അപ്പോൾ പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ അഴുക്ക് സ്ഥലത്തിലാണെങ്കിൽ അഴുക്കു വെള്ളമായിരിക്കും നമുക്ക് കയറി വരുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന അതായിരിക്കും അതു കാരണം പൈപ്പുകളൊന്നും പൊട്ടിപ്പോകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം തോടുകളിൽ മലിനമാക്കാൻ തോടുകൾ മലിനമാക്കാതെ വേസ്റ്റുകളിടാതെയൊക്കെ ശ്രമിക്കുക നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് ശുചി ഉള്ള വെള്ളം ആവശ്യമാണെന്നുള്ള ധാരണ എല്ലാവർക്കും മുന്നിലെടുത്തു കൊണ്ടു വേണം നമ്മൾ കനാലുകളും തോടുകളുമൊക്കെ കിണറുകളൊക്കെ ശുചിയായി സൂക്ഷിക്കേണ്ടത് വെള്ളം നമുക്ക് നല്ല ശുദ്ധിയുള്ള വെള്ളം തന്ന ആവശ്യമാണ്